ദക്ഷണേന്ത്യയിലെയൊരു പിന്നെ ചെറിയൊരു സംസഥാനമായിട്ടുള്ളൊരു കേരളത്തിൽ പിന്നെ അതായത് മലബാറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു തീരദേശത്ത് നമുക്ക് സ്ഥിതി ചെയ്യുന്നൊരു ഇതാണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയെന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിട്ടുള്ള പിന്നെ ഒരു നഗരമാണ് കോഴിക്കോട് അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ടമായ പൗരാണികതയുടെ ശേഷിപ്പുകളുമായിട്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു നഗരം തന്നെയാണ് നമ്മുടെ കോഴിക്കോട് അത് കൊണ്ട് തന്നെ ഈ നമ്മുടെ നഗരത്തിന് സുഗന്ധദ്രവ്യങ്ങളുടെ നഗരമെന്നും വിളിക്കപ്പെടും അതായത് ആദ്യ കാലങ്ങളിലൊക്കെ വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള വ്യക്തികൾ ആണ് നമ്മുടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരിക വൈക്കം മുഹമ്മദ് ബഷീർ ആണ് നമുക്ക് മനസ്സിൽ വരിക നമ്മുടെ ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കഥാകൃത്ത് ആണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അതായത് ചരിത്രത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കോഴിക്കോട് ജില്ല പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മലയാളം സംസാരിക്കുന്ന ആളുകൾ ഈ ദേശത്തെ കോഴിക്കോട് എന്ന് വിളിച്ചു അറബികൾ അത് കാലികൂത്ത് എന്ന് വിളിച്ചു പിന്നെ തമിഴരത് കള്ളിക്കോട്ടൈ എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്